പാചകം ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെത്തന്നെ പാട്ട് പാടാനുള്ള കഴിവുണ്ട് അതുപോലെത്തന്നെ നീന്താൻ നന്നായിട്ടറിയാം ഇതെല്ലാം വികസിപ് ഇതെല്ലാം വികസിപ്പിച്ചെടുത്ത എങ്ങനെയെന്നു വെച്ചു കഴിഞ്ഞാൽ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കേട്ട് കേട്ടിട്ട് അത് പാടാൻ തുടങ്ങി അപ്പോൾ പാടിയിട്ട് അതിൽ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തിയിട്ട് വീണ്ടും വീണ്ടും പാടി പിന്നെ കുറച്ചുംകൂടി നന്നാവാൻ വേണ്ടിയിട്ട് ഒരു സംഗീത അദ്ധ്യാപകൻ്റെ അടുക്കൽ പോക് കീഴിൽനിന്ന് സംഗീതം അഭ്യസിച്ച് അപ്പോൾ അവർ കുറേ തെറ്റെല്ലാം പറഞ്ഞു തന്നു അതെല്ലാം തിരുത്തിയിട്ട് പിന്നെയും പാടി അങ്ങനെ സ്റ്റേജുകൾ പാടി അങ്ങനെ അങ്ങനെയാന്ന് ഈ സ സംഗീതം അതായത് പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ പാചകം വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇടക്കിടക്ക് പാചകം ചെയ്യുന്ന സമയത്ത് നിരന്തരമായിട്ട് തെറ്റുകളും ഉണ്ടാവലുണ്ട് അപ്പോൾ ആ തെറ്റുകൾ തിരുത്തി കുറച്ചുംകൂടി നല്ല രീതിയിൽ നല്ല ക നള പാകത്തോടു കൂടി ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ സന്തോഷത്തോടുകൂടി അത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് പാചകം വളരെ വിദഗ്ധമായിട്ട് പഠിച്ചെടുത്ത് പിന്നെ നീന്തൽ എപ്പോൾ ആദ്യമെല്ലാം പേടിയായിരുന്നു നീന്താൻ പോകാൻ വെള്ളം കാണുമ്പോൾ പേടിയേനു പിന്നെ ഒരാൾ മുക്കിയേനു നീന്താൻ പഠിക്കണം എന്ന് വലിയ ഒരു അഗ്രഹേന്നു അങ്ങനെ നീന്താൻ പഠിച്ചു അങ്ങനെ നീന്താൻ തുടങ്ങി ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളമുള്ള നീന്താൻ പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാന്ന് ഇപ്പോൾ നല്ല രീതിയിൽ നീന്താനറിയാം ഫ്ലോട്ടിങ്ങായിക്കോട്ടെ അതുപോലെത്തന്നെ ബട്ടർഫ്ലൈ ഫ്ലോട്ടിങ് അങ്ങനെ ക പലതരം ഫ്ലോട്ടിങ്ങുണ്ട് അപ്പോൾ നീന്താൻ പഠിച്ചതു കൊണ്ട് അതിൻ്റെ ഓരോ നീന്തൻ രീതികളും കൂടി അഭ്യസിക്കാൻ തോന്നി പിന്നെ നീന്തം പഠിപിക്കുന്ന ഒരു അദ്ധ്യാപകനുണ്ടേനു അവിടെത്തന്നെ അപ്പോൾ അവർ കുറച്ചുംകൂടി നല്ല രീതിയിൽ നീന്തം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു നമ്മളെ അതിന് അഭ്യസിപ്പിച്ചെടുത്തു അങ്ങനെ നീന്തത്തിന് സർട്ടിഫിക്കറ്റും വാങ്ങി